എനിക്ക് ഇവിടെയൊരു അടുക്കള തോട്ടമുണ്ട് അതിൽ ചീര ഉണ്ട് ചീന മുളകിൻ്റെ തൈയ്യുണ്ട് വലിയ മുളകുണ്ട് ഞാൻ മുളകും ഇതൊക്കെ ഒന്നും ഞാൻ കടേന്ന് വാങ്ങലില്ല ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് ചെയ്യലാണ് ആദ്യം ഞാൻ ഇത് കവറിൽ ആദ്യം ചമ്മല ചമ്മലത് നിറയ്ക്കും പിന്നെ അതിൽ കുറച്ച് കുറച്ച് മൊ ചാണകപ്പൊടി മണ്ണും കുറച്ച് മതി എന്നിട്ട് അതിൽ ഒരു ചെടി ചട്ടിയിൽ മുളകിൻ്റെ വിത്ത് പാകും വഴുതനങ്ങേൻ്റെയും അത് എന്നിട്ട് പാവി അതിൽ മുളച്ചിട്ടാണ് ഞാൻ മാറ്റി കുഴിച്ചിടൽ അപ്പം വഴുതനങ്ങ ഉണ്ട് ചീനമുളകുണ്ട് വലിയ മുളകുണ്ട് അതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കണത് പിന്നെ മുരിങ്ങേൻ്റെ ഇല ഉണ്ട് കറുവത്ത ചേമ്പിൻ്റെ തണ്ട് ഉണ്ട് ചേമ്പുണ്ട് മഞ്ഞൾ കൃഷിയുണ്ട് ഒക്കെ ഞാൻ തന്നെ ചെയ്യും അതൊന്നും പുറത്തിന്ന് വാങ്ങണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും വളമൊക്കെ ഇട്ടൊടുക്കും അതിൻ്റെ ചോട് നല്ലോണം കിളച്ച് ഇത് ഇതാക്കി നല്ലോണം വളങ്ങളൊക്കെ ഇട്ടു കൊടുത്ത് ചാണകപ്പൊടിയും ഇതൊക്കെ ഇട്ടും കൊണ്ടാണ് വെണ്ണീരൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ നല്ലോണം കായ ഉണ്ടാവലിണ്ട് നല്ല മുളകാണ് വഴുതനങ്ങ ഉണ്ട് മുളക് പേരക്ക ഉണ്ട് ഉള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്